ആ അതെ

ഹാ ആ ഓക്കേ ആ എങ്ങനത്തെ ടൈപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ടു ടൈപ്പ് ഉണ്ട് ഒന്ന് സാദാ സാദാ ടൈപ്പ് ഡീസൽ ഏഹ് ആ ആ നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് ഹോ

അതിന് ഏകദേശം ഒരു നമ്മളെ ഈ കുറേ കമ്പനീസിൻ്റെ പല പല ടൈപ്പ്സ് വരുമ്പോൾ രണ്ടിൽ ടു ലാക്ക് ത്രീ ലാക്കിൻ്റെയൊക്കെ ഇടയിൽ വരും

ഓ ഫിറ്റിങ് ഓ ഞങ്ങൾ അവിടെ ഡെലിവർ ചെയ്തുതരാം അതിനൊക്കെയുള്ള ഫുൾ സംവിധാനം നമ്മുടെ കയ്യിലുണ്ട് ആ ഡീസൽ ആ കുറഞ്ഞ കുറഞ്ഞ ഡീസൽ മതി അതാവുമ്പോൾ മറ്റേതാവുമ്പോൾ കൂടുതൽ ഡീസലും വേണം അതുമാത്രമല്ല നല്ല നോയ്സും ഉണ്ടാവും ഇതാവുമ്പോൾ കുറഞ്ഞ ഡീസൽ മതി

ആ ഓക്കേ ഓക്കേ അപ്പോൾ അതുതന്നെ ഓർഡർ ചെയ്യാം അല്ലേ അല്ല ഫുൾ സെറ്റിംഗ്സ് നമ്മൾ ചെയ്തുതരും